എനിക്ക് അനിരുദ്ധ് രവിചന്ദ്രൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ് ആളുടെ പാട്ടെന്നു പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ നമുക്ക് കേട്ട് ഇരുന്നതങ്ങ് കേട്ടിരുന്നു പോവും അത്രയ്ക്കും അടിപൊളിയാണ് എന്താ പറയുക ഭയങ്കര ഫീലൊക്കെയാണ് അത് കേൾക്കുമ്പോൾ സെറ്റാണ് എന്താ പറയുക നമുക്ക് പാട്ടു കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ്സ് തന്നെയാണ് തോന്നുന്നത് ആളെ ഇപ്പോൾ ആളുടെ എല്ലാ പാട്ടും തന്നെ എനിക്ക് ഫേവറൈറ്റ്സ് ആണ് ഇന്ന പാട്ട് ഇങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ ഒന്നുമില്ല എല്ലാ പാട്ടും ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ എങ്ങാനും ആളെ ഒരു ദിവസം നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് നടക്കുമോ എന്നൊന്നും അറിയില്ല എങ്ങാനും നടന്നാൽ തന്നെ ആളുടെ വോയ്സ് എന്താ പറയുക ആ ഒരു വോയ്സ് എനിക്ക് നേരിട്ട് തന്നെ ആസ്വദിക്കണം എന്ന് ആഗ്രഹമുണ്ട് നടക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ആളുടെ കൂടെ ഒരു സെൽഫി എടുക്കുക പിന്നെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനും ഒക്കെ നല്ല ഒരു ആഗ്രഹമുണ്ട് എന്നുതന്നെ പറയാം ആളുടെ പാട്ടൊക്കെ അത്രയും ഭയങ്കര അടിപൊളിയാണ് സെറ്റാണ്